ഹലോ മിൽട്ടൺ റെസ്റ്റോറന്റ് ആണോ മാം കുറച്ച് പിന്നെ ഒരു കല്യാണത്തിന്റെ ഓർഡറിന് വേണ്ടിയായിരുന്നേ അപ്പം അടുത്ത ഞായറാഴ്ച്ചത്തേക്കാണ് അപ്പ ഞങ്ങൾക്ക് പിന്നെ രാവിലെ മോണിംഗ് അവിടെ എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാവുക

ആ പിന്നെ അപ് ആ അപ്പവും മുട്ട കറിയും ഒരു നൂറെണ്ണം നൂറ് അപ്പവും അതിനനുസരിച്ചുള്ള കറിയും രാവിലത്തേക്കേ ആ വെജിറ്റെബിളും വേണം പിന്നെ മുട്ട കറിയും രണ്ടും കൂടെ അതൊരു നൂറ് അപ്പവും ഒരൂ മുട്ട കറി ഒരു പത്ത് മുട്ട കറിയൊക്കെ മതി ആ ബാക്കി വെജിറ്റെബിൾ കറി ഏത് ഗ്രീൻ പീസ് അങ്ങനെ എന്തെങ്കിലും മതി പിന്നെ ഉച്ചത്തേക്ക് പിന്നെ ഉച്ചത്തേക്ക് ബിരിയാണി എന്തൊക്കെ ബിരിയാണിയാണ് ഉള്ളത് അവിടെ ചിക്കൻ ബിരിയാണി ഒരു പിന്നെ ഒരു ഇരുനൂറ് മുന്നൂറ് ചിക്കൻ ബിരിയാണി പിന്നെയൊരു നൂറ് പേർക്ക് സദ്യ ആ സദ്യയ്ക്ക് പായസം അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ലേ ആ അപ്പം അതും പിന്നെ ഐസ്ക്രീം എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത്

ആ ഹാ ഹാ അപ്പം അത് വേണമായിരുന്നു എങ്ങനെ നിങ്ങൾ ഗൂഗിൾ പേ വഴിയാണോ അതോ ക്യാഷ് ഓൺ ഡെലിവറി അങ്ങനെയാണോ ആ ഹാ ഹാ ഓക്കെ ഓക്കെ ആ ഓക്കെ പിന്നെ അതുപോലെ വൈകുന്നേരത്തേക്കുള്ള കടിയും ചായയും അങ്ങനത്തെ എന്തെങ്കിലും വേണം കേട്ടോ കടികൾ എന്തൊക്കെ ഉണ്ടാവുക ആ നമുക്കൊരു ഇരുനൂറ് പഴംപൊരിയും പിന്നെ ഒരു ഇരുനൂറ് ചായയും അങ്ങനെ ആ എന്നാൽ ഓക്കെ മാം വിളിക്കാം അപ്പോഴത്തേക്കും